നമ്മടെ പ്രദേശത്ത് കാണുക സാംസ്കാരികവും പരമ്പരാഗതവുമായ ഒരു നൃത്തമാണ് മാർഗംകളിയും ദഫ്മുട്ടും മാർഗം കളി എന്ന് വച്ചാൽ ക്രിസ്റ്റ്യൻ വീടുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു കളിയാണ് അതിനെ പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് പുതുതലമുറകളിലേക്ക് അതിനെ പഠിപ്പിക്കേണ്ടത് നല്ലതാണ് അതുപോലെ തന്നെയാണ് ദഫ്മുട്ട് മുസ്ലിം പാരമ്പര്യത്തിൽ കാണാപ്പെടുന്ന ഒരു നിർത്തേ നൃർത്തമാണ് നൃത്ത രീതിയാണ് ദഫ് മുട്ട് അതും നമ്മുടെ വരും തലമുറയ്ക്ക് പഠിപ്പിക്കേണ്ടതു കൊണ്ട് പഠിപ്പിക്കേണ്ടത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം